എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകാരനും സംഗീത സംവിധായകനും എന്ന് പറയണത് എ ആർ റഹ്മാൻ ആണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേൾക്കാൻ തന്നെ ഒരു ഫീലാണ് നമ്മൾ ഏത് മൂഡിൽ ഇരിക്കുകയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പാട്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു സന്തോഷമാണ് നമുക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ അതായത് നമുക്കേത് മൂഡിലിരിക്കുമ്പോഴും ഏത് മൂഡ് സോങ്ങും അദ്ദേഹത്തിൻ്റെ പ്ലേ ലിസ്റ്റ് എടുത്താൽ കിട്ടും നമ്മൾ സാഡായിട്ടിരിക്കുമ്പോൾ അതിന് പറ്റിയ സോങ്ങുകൾ ഉണ്ടാവും നമ്മൾ ഒരു ഹാപ്പി മൂഡിലിരിക്കുകയാണെങ്കിൽ അതിന് പറ്റിയ സോങ്ങുകളുണ്ട് അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു എനിക്ക് അദ്ദേഹത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രത്യേകതകൾ പിന്നെ അദ്ദേഹത്തിൻ്റെ വോയിസ് നമ്മൾ ഒരു മാജിക്കൽ വോയിസ് പോലെയാണ് നമ്മൾ എന്തൊരു സിറ്റുവേഷനിലും അത് കേൾക്കുന്ന സമയത്ത് നമുക്കതൊരു ഒരു ഇൻസ്പിറേഷൻ പോലെയാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഓസ്കാർ വിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഓസ്കാർ കൊണ്ടുവന്ന ആളാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓസ്കാർ വിന്നിങ് പാട്ടുണ്ട് ജയ് ഹോ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഭയങ്കര ഇൻസ്പിറേഷനൽ ആയിട്ടുള്ള ഒരു പാട്ടാണ് പിന്നെ നമ്മൾ ചെറുപ്പം തൊട്ടുതന്നെ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേട്ടിട്ടാണ് വളർന്നിട്ടുള്ളത് അത് കൊണ്ടുതന്നെ ആ ഒരു ഇഷ്ടവും ചെറുപ്പം തൊട്ടുള്ള ഒരു ആ ഒരു ഇഷ്ടം ഉണ്ട് പിന്നെ എനിക്ക് ഒരു മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം എന്ന് പറയുന്നത് പുള്ളീടെ ഒരു കോൺസെർട് നടന്നിട്ടുണ്ടായിരുന്നു തമിഴ്നാട് ആ ഒരു സമയത്ത് എനിക്കതിൽ പങ്കെടുക്കാൻ പറ്റി എനിക്കത് നേരിട്ട് കാണാൻ പറ്റി അദ്ദേഹത്തെ അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു